കേരളത്തിലെ ആളുകൾ അവരുടെ സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നവരാണ് മിക്ക ആളുകളും തന്നെ അവരുടെ ആ ഒരു ഇത് കാത്തുസൂക്ഷിക്കുന്നവരാണ് ഒരുപാട് പേര് ആയോധന കലകളും കളരിയും കൈകൊട്ടിക്കളി കളരി ഒരുപാട് പേര് ഒരുപാട് അങ്ങനത്തെ കേരളത്തിലെ പൈതൃക സംസ്കാരങ്ങളൊക്കെ സൂക്ഷിച്ച് കാത്തുസൂക്ഷിച്ച് പുതിയ തലമുറയ്ക്ക് കൈമാറി ജീവിക്കുന്നവരാണ് പിന്നെ കേരളത്തിലെ ഒരു ഒരു ഒരു പൈതൃകം തന്നെയാണ് മുണ്ട് എന്നു പറയുന്നത് കേരളത്തിലെ ഒരു എല്ലാ പുരുഷന്മാരും തന്നെ മിക്ക പുരുഷന്മാരും തന്നെ മുണ്ട് ഉപയോഗിക്കുന്നവരാണ് എന്തെങ്കിലും ഒരു ആഘോഷം വന്നാൽ അല്ലെങ്കിൽ ഒരു ക്ഷേത്രദർശനത്തിന് പോകുമ്പോൾ കേരളത്തിലെ പുരുഷന്മാർ കൂടുതൽ ആൾക്കാരും തന്നെ മുണ്ടാണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്